ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഗുണ നിലവാരം നോക്കുമ്പോൾ അത് വളരെ മികച്ചൊരു രീതീയിലാണ് കേരളത്തിൻ്റെ ഒരു ആ ഇതുവരെ ഉള്ള ഒരു ഇത് ഉള്ളത് അത് കാരണം നല്ല രീതിയിലുള്ള ഒരു മുൻതൂക്കം തന്നെ കേരളത്തിൽ ഈ ഒരു വിഭാഗത്തിനുണ്ട് ഇതിന് ഒരു മുഖ്യ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിന് ഉയർന്ന സാക്ഷരത നിരക്കാണ് സാക്ഷരത നിരക്ക് കൂടുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഒരു പൗരന്മാർക്ക് നല്ല ഈ ഒരു എന്താണ് പറയുക ആരോഗ്യ മേഖലയെ കുറിച്ച് നല്ല ഒരു ബോധം ഉണ്ട് അവർക്ക് എന്തെങ്കിലും പുതിയ ഒരു അസുഖം വന്നാലും ഒരു എന്താണ് ആശുപത്രി പോകുക ഡോക്ടർമാരുമായിട്ട് ഇടപഴകാനുള്ളൊരു വിശ്വാസം ഇതൊക്കെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ വച്ച് നോക്കുമ്പോൾ വളരെ അധികം കൂടുതൽ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ ആരോഗ്യ നിലക്കും ഒരു വൻ മുൻതൂക്കം തന്നെ ആണ് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വച്ച് നോക്കുമ്പോൾ ഉള്ളത് പിന്നെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു ഒരു സംസ്കാരത്തിൽ ആരോഗ്യത്തിനും സാക്ഷരതയ്ക്കും വിദ്യാഭ്യാസത്തിനും വളരെ അധികം മുൻതൂക്കം കൊടുക്കാറുണ്ടായിരുന്നു പണ്ടുള്ള ഭരണാധികാരികൾ തൊട്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഇതാണ് ഇതാണ് എല്ലാവരും നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോഗ്യ വിഭാഗത്തിൽ കേരളത്തിനും കുറേ അധികം മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേരളം പല പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലവാരത്തിൽ തന്നെ കേരളത്തിൽ ആരോഗ്യ മേഖല ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പടിഞ്ഞാറൻ സംസ്ഥാനത്തേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ ആരോഗ്യ മേഖലയിൽ കേരളം ചിലവഴിക്കുന്നുണ്ട് ഈ ഒരു ചിലവ് ഒരിക്കലും ഒരു അധിക ചിലവായിട്ട് ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കേരളത്തിലെ മികച്ച ആരോഗ്യ നില കാരണം ഈ ഒരു ചിലവ് ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് ഉള്ള ഒരു ആരോഗ്യ മേഖല കെട്ടിപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പ അത് കൊണ്ട് തന്നെ ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കൽ സമാധാനം തുടങ്ങിയ മികച്ച പ്രകടനമാണ് കേരളം കാഴ്ച വയ്ക്കുന്നത് ഡോക്ടർമാർക്ക് എതിരെയുള്ള അനീതികളും കേരളം അത് കേരളത്തിൽ ചെറിയ തോതിൽ ഉണ്ടെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ വച്ച് നോക്കുമ്പോൾ വളരെ മോശം ആ വളരെ കുറവാണ് ഈ ഒരു വിഭാഗത്തിൽ കേരളം ഡോക്ടർമാർ ശരിക്കും നല്ല ഒരു വളരെ നല്ല ഒരു സൗഹൃദമാണ് ഡോക്ടർമാരും ബാക്കി ഉള്ള രോഗികളും പൗരന്മാരും തന്നെ ഇവിടെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഓരോ സാക്ഷരതയും ഈ വമ്പിച്ച ആരോഗ്യ മേഖലയിലുള്ള ചിലവും കേരളത്തിനെ വളരെ അധികം സഹായിക്കുന്നുണ്ട് മികച്ച ഒരു ആരോഗ്യ മേഖലയിലേക്കെത്താൻ ഇത് ഇന്ന് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയുടെ തന്നെ ഒരു തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലം സംസ്ഥാനങ്ങളേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ പല ഉന്നത രീതീയിലുള്ള ചികിത്സാ രീതികളും കേരളത്തിൽ ലഭ്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും വരെ ആൾക്കാർ കേരളത്തിൽ വന്ന് ചികിത്സ തേടുന്നു ഇതിന് ഒരു മുഖ്യ കാരണം ഈ മികച്ച ആരോഗ്യ ശൃംഖലയാണ് കേരളത്തിൽ ഉള്ളത് ഇത് വളരെ അധികം ആ പൗരന്മാരുടെയും പണ്ടേ തൊട്ടുള്ള ഭരണാധികാരികളുടെയും ഭരണാധികാരിയുടെയും പിന്നെ കേരളത്തിലുള്ള നല്ല നിലവാരമുള്ള ഹോസ്പിറ്റലുകളുടെയും ഡോക്ടറുകളുടെയും തന്നെ ഒരു ബലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ആരോഗ്യനില വളരെ അധികം മികച്ച ആ കാഴ്ച ഒരു നിലവാരമാണ് കാഴ്ച വയ്ക്കുന്നത് ബാക്കി ബാക്കി ഉള്ള സംസ്ഥാങ്ങളെ വച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ